ഞങ്ങളുടെ ഗ്രാമത്തിലെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പലചരക്ക് കടകൾ ഉണ്ട് എല്ലാ കടകളിലും വ്യത്യസ്ഥമായ രീതിയിൽ ഒത്തിരി ഏറെ സാധനങ്ങളൊക്കെ ഉണ്ട് ചില കടകളിൽ വില കൂടുതലായിരിക്കും ചില കടകളിൽ വില കുറവായിരിക്കും ഒരേ സാധനത്തിന് തന്നെ പല കടയിലും പല വിലകളാണ് മേടിക്കുന്നത് പലചരക്ക് കടയിൽ ചെന്നിട്ട് നമുക്ക് അങ്ങനെ വില പേശി മേടിക്കാൻ ഒന്നും പറ്റിയെന്ന അവസ്ഥ ഒന്നും അല്ല അവർ പറയുന്ന വില നമ്മൾ കൊടുത്ത് തന്നെ മേടിക്കണം അവിടെ ഇപ്പം ഒക്കെ ഒരു ലഭ്യമാകുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പലചരക്ക് കടയിൽ ഇപ്പം അരി ഉണ്ട് അരി ഉണ്ട് മുളക് ഉണ്ട് ഉപ്പ് ഉണ്ട് മല്ലി ഉണ്ട് നമ്മുടെ ഒരു വീട്ടിൽ പെട്ട എല്ലാ സാധനവും ഉപ്പ് ഉണ്ട് മല്ലി ഉണ്ട് ചായപ്പൊടി ഉണ്ട് പഞ്ചസാരയ്ണ്ട് അങ്ങനെ പച്ചക്കറികളെല്ലാ സാധനങ്ങളുവുണ്ട് കിഴങ്ങ് വർഗങ്ങളുണ്ട് ഇപ്പം നിലവിൽ പച്ചക്കറി കടയിൽ പലഹാരങ്ങൾ വരെ ബേക്കറി പലഹാരങ്ങൾ വരെ ഇപ്പ പച്ചക്കറി കടയിൽ മിട്ടായികൾ പലഹാരങ്ങൾ അങ്ങനെയെല്ലാം കിട്ടാൻ തുടങ്ങി അങ്ങനെ ഒര്സ ഒരേ എല്ലാ സാധനങ്ങളും പച്ചക്കറി കടേലെന്തൊക്കേ വെക്കാൻ പറ്റ്വോ അങ്ങനെ ഉള്ള എല്ലാ പലചരക്കള്ണ്ട് പച്ചക്കറികള്ണ്ട് എല്ലാ സാധനങ്ങളും കടകളേ കൊണ്ട്ണ്ടരി ഏത് തരം അരിയാണ് എല്ലാ അരികളുണ്ടാ അരികളെല്ലാ ഉണ്ട് കടലയ്ണ്ട് പയറ്ണ്ട് അങ്ങനെ ഉഴ്ന്ന്ണ്ട് പരിപ്പ്ണ്ട് ചെറ്പയറ്ണ്ട് ഇങ്ങനെ പഞ്ചസാര ഉണ്ട് ശർക്കര ഉണ്ട് അങ്ങനെ എണ്ണയ്ണ്ട് ഓയില്ണ്ട് നൈൻ വൺ സിക്സ്ണ്ട് പിന്നെ സാധാ ഓയില്ണ്ട് കേരേനൊക്കെ കേരാ ഉണ്ട് പിന്നെ മീന്കളാണേലു എല്ലാ സൈസ് മീന്കളുണ്ട് തെണ്ടൻ മീന്ണ്ട് തെരണ്ടി മീന്ണ്ട് വറ്റയ്ണ്ട് ചൂര എങ്ങനാ ഇതൊക്കെ ഉണക്കിയൊന്ന് ഉണക്കി മീന്കളാണേൽ സൂപ്പർ പറവയ്ണ്ട് അങ്ങനെ എല്ലാ ഒത്തിരിയേറെ ഐറ്റം മീന്കളു എല്ലാ ഉണ്ട് എനിക്ക് എല്ലാം ഇങ്ങനെ വെറ്തെ ഒന്നും പേര്കളൊന്നു അറിയത്തില്ല എങ്കിലും പലചരക്ക് കടെ ചെന്ന് നമ്മൾ ഇങ്ങനെ വില പേശി അങ്ങനെ ഓരോ സാധനങ്ങൾ മേടിക്കണ്ടവസ്ഥയൊന്നു ഇല്ല എന്നാന്ന് വെച്ചാൽ പലചരക്ക് കടയിൽ ചെന്ന് നമുക്ക് വില പേശാനായിട്ട് പറ്റൂല എന്നതാ പറയുന്നത് പലചരക്ക് കടയിൽ ചെന്ന് നമുക്ക് അങ്ങനെ വില വില പേശാനൊന്നും പറ്റില്ല നമ്മൾ ഇത് അവർ പറയുന്ന വില കൊടുത്ത് സാധനം മേടിക്കാന്നുള്ളതല്ലാതെ നമ്മക്ക് വേറേയൊന്നും പറ്റിയൊന്നു ഇല്ല നമ്മുടെ എന്നാ അവരൊര് സാധനത്തിനിത്ര രൂപയാന്ന് പറയ്ന്നു നമ്മൾ തേങ്ങാ തേങ്ങയാണങ്കിപ്പോൾ തേങ്ങക്കാണങ്കിപ്പൊ ഭയങ്കര വിലയാണ് എൺപതെമ്പത്തഞ്ച് രൂപയൊക്കെയാണ് ഒരു കിലോ തേങ്ങക്ക് ആ തേങ്ങേടെ വെല നമ്മളവ്ട ചെന്ന് പേശാന്നോ പേശി നമക്ക് മേടിക്കാൻ പറ്റൂല്ല തേങ്ങ അതേ സമയം വീട്കളിലെ ഒക്കെയാണങ്കി നമക്കിത്ര വെല കേറ്റിയെല്ലാക്ന്ന് പറഞ്ഞോണ്ട് തേങ്ങ അല്ലാതെ എങ്ങനേലും മേടിക്കാൻ പറ്റു വീട്കളേക്ക്ള്ളയൊക്ക ചെന്ന് മേടിക്ക്ക മേടിക്ക്ന്നേനാണേല് കൊഴപ്പൊന്നു ഇല്ല പിന്നെ ഞങ്ങടെയൊക്കെ ഈ സിറ്റീലാണങ്കി ഇഷ്ടംപോലെ പലചരക്ക് കടകള്ണ്ട് ഏത് കടേല് ചെന്ന് മേടിക്കണോന്ന് ഉള്ളത് നമ്മടെ ഇഷ്ടവാണ് ഏത് കടെ ചെന്നാലും ഇഷ്ടംപോലെ സാധനങ്ങളാണ് ഇഷ്ടംപോലെ ഐറ്റവുണ്ട് നമുക്ക് വില കൊട്ത്ത് മേടിക്കാനായിട്ട് നമ്മക്കടെ ഇഷ്ടം അന്സരിച്ചേത് കടെ പോണോ ആ കടെ പോയി അവര് പറയ്ന്ന വെല കൊട്ത്ത് മേടിക്കുന്നു നമ്മള് പലചരക്ക് കടെ പോയി പേശലൊന്നും നടക്ക്ന്ന കാര്യല്ല അത് നമ്മുടെ നാട്ടി പറ്റ്യേല വില പേശി മേടിക്കാന്നുള്ളത് അത് ഈ റോഡ് സൈഡി കൂടെ ഇരിക്ക്ന്നവരിങ്ങനെ ഒര് സാധനായിട്ടിരിക്കുമ്പ അവരട്ക്ക പോയി നമ്മള് വില പേശു അങ്ങനെ വില പേശി മേടിക്കുന്ന പോലെ നമുക്ക് നമ്മുടെ സിറ്റീലെ കടകളി പോയി ഇത് അതിൻ്റെ വിലയെത്ര ഇതിൻ്റെ വില വില ചോദിക്കും വില എത്രയാന്ന് ചോദിച്ച് മേടിക്കും പക്ഷേ നമുക്ക് ഇത് എത്രയാന്ന് എന്നാന്നന്ന്ള്ള കാർണൊക്ക പറയാൻ പറ്റ്കേല അവർ വില പേശി നമുക്ക് സാധനം മേടിക്കാനേ പറ്റില്ല അവർ വെല പറയും നമ്മളാ വെല കൊട്ത്ത് സാധനം മേടിക്കാ അതല്ലാതെ നമക്ക് വെല പേശാനൊന്നും പറ്റ്ന്ന അവ്ടെയില്ല പിന്നെ കടകളിലത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെയാണ് എല്ലാരും കൊണ്ടന്ന് വെക്കുന്നത് മോശമായ സാധനങ്ങളൊന്നു അധികം അങ്ങനെ ആരും കൊണ്ടെരാറില്ല മോശം സാധനം കൊണ്ടന്നാ ആളുകൾ ചോദിക്കും ഇതെന്ത് സാധനാടാവേന്ന് ചോദിക്കുന്ന ആളുകളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഉള്ള പണ്ടൊക്കെ കിട്ടുന്നതും മേടിച്ചോണ്ട് പോവായിര്ന്നെങ്കി ഇന്ന്ള്ള ഇന്ന്ള്ള സമൂഹ അങ്ങനെയല്ല ഇന്ന് എന്ത് സാധനം കണ്ടാലു അതെന്താണങ്ങനെ എന്ന് ചോദിച്ചിട്ട് മേടിക്ക്ന്നവരാണ് ഇന്നുള്ളവര് ചീഞ്ഞ ഉള്ളി തന്നാല് ചീഞ്ഞ ഉള്ളി ആടാവേന്ന് തന്നെ പറയു അല്ലെ ചീഞ്ഞ തേങ്ങ തന്നിട്ട് ഇതെന്ത് സാധനാണ് തന്നേന്ന് ചോദിക്കും അങ്ങനെ തിരിച്ച് ചോദിക്ക്ന്നവരാണിന്ന് നമ്മളെ നാട്ടിലുള്ളത് പിന്നെ പിന്നീട് പണം കൊട്ക്കാറില്ല നമ്മള കയ്യില് കാശ്ണ്ടെങ്കില് സാധനം മേടിക്കാറുള്ളു പിന്നീട് നമ്മള് പൈസ കൊട്ക്കേല ഒള്ള കാശിനൻസരിച്ച് ഒള്ള സാധനം മേടിച്ച് വീട്ടി വെര്കാന്നുള്ളതാണല്ലാതെ നമ്മളവര് അവര് കാശ് കൊട്ത്ത് മേടിക്ക്ന്ന സാധനം നമ്മളത് പോയി കടം മേടിച്ചിട്ട് അവർക്കൊര് ബാധ്യതയാക്കണ്ട കാര്യ ഇല്ലാര്ന്ന് നമ്മള് നമ്മള കൈയ്യി പൈസയ്ണ്ടെങ്ക് നമ്മള് സാധനം മേടിക്ക്യ അങ്ങനെ നമ്മള് വീട്ടിലിര്ന്നോള്ക നമ്മടെ കയ്യി കാശില്ലേ നമ്മള് സാധനം മേടിക്കണ്ട നമ്മള് വീട്ടിലിരിക്ക പിന്നീട് പൈസ നൽകാന്നും പറഞ്ഞോണ്ടവര പറ്റിക്കണ്ട കാര്യ ഇല്ല നമക്ക് നമ്മടെ കയ്യിലെ കാശ് കൊട്ത്ത് സാധനം മേടിക്ക്ക അതാണ് എൻ്റെ അയിപ്രായം അവര് വെല കൊട്ത്ത് മേടിച്ച് കൊണ്ടന്ന് വെക്ക്ന്ന സാധനങ്ങള് നമ്മളെന്നാത്തിനാത് അവർക്ക് വെല കൊട്ക്കാതെ സാനം മേടിക്ക്ന്നെ പിന്നീട് കൊട്ക്കാന്ന് പറഞ്ഞിട്ട് അത് പിന്നീട് കൊട്ക്കാ പറ്റീല്ലെങ്കി അതതിലും വെല്യ തെണ്ടിത്തരാണ് നമ്മള് കാണിക്ക്ന്നേന്ന് നമക്ക് മൻസ്സിലാവും അത് പിന്ന നമ്മള്ള് കാശ്ള്ളപ്പൊ നമ്മള് നമ്മടെ കയ്യിലെ കാശ് കൊട്ത്ത് സാധനം മേടിക്ക്യ പേശാൻ പോവണ്ട കാര്യ ഇല്ല ചെലപ്പ അവർക്ക് പത്ത് രൂപക്ക് കിട്ടിയ സാധനായിരിക്കും നമ്മക്കൊരു പതിനഞ്ച് രൂപക്ക് തെര്ന്നത് എങ്കിപ്പോലും അവര്ടെ ജോലിക്ക് അവര്ടെ കൂലിക്ക്ള്ളതവര് കൂട്ടി മേടിക്ക്ന്നു അത്രേ ഒള്ളൂ അതിപ്പ നമ്മള് അവരൊത്തിരി അങ്ങോട്ട് കൂട്ടി മേടിക്കില്ല എങ്കി പോലും നമ്മടെ സിറ്റീലൊരു സാധനത്തിന് ഇര്പത് രൂപയാണങ്കി ഇരുപത്രണ്ട് രൂപ മേടിക്ക്ന്നവര്ണ്ട് ആ സാധനം തന്നെ ഇരുപത്തിനാല് മേടിക്ക്ന്നവര്ണ്ട് കച്ചവടക്കാരല്ലേ അത്പോലെ കച്ചകവടോന്നാണല്ലോ പറയ്ന്നത് തക്കം കിട്ട്മ്പോ തക്കം കിട്ട്ന്നവരോട് അതൻസരിച്ച് പൈസ കൂട്ടി മേടിക്കും ഒരു നിശ്ചിത വെല എല്ലാരും ഇട്കാന്നുള്ളത് അതൊരു ന്യായമായ കാര്യാണ് നിശ്ചിത വെല ഇടാത്തട്ത്തോളം കാലം അവര് പറയ്ന്ന വെല കൊട്ത്ത് നമ്മള് സാധനം മേടിക്കണം അതെ എന്നാലാണ് നമ്മടെ ഇഷ്ടത്തിനൻസരിച്ച് സാധനം അവര് തര്യേല അവര് പറയ്ന്ന വെലയാണ് എപ്പോഴും കടെ ചെന്ന് കടേല് നമക്ക് പേശല് നടക്കേല പലചരക്ക് കടെ പ്രത്യേയിച്ചും നമക്ക് പേശാൻ പറ്റില്ല അത്കൊണ്ട് അവര് പറയ്ന്ന വെലയും കൊട്ത്ത് അപ്പൊ തന്നെ കാശും കൊട്ത്ത് തിരിച്ച് പോരുകാന്നുള്ളതാണ് അങ്ങനെയാണ് ഇത്രയും നാളും ചെയ്തിട്ടുള്ളത് ഇനി വരും കാലങ്ങളിലും അങ്ങന തന്നെ ചെയ്യണം എന്നാണ് അഭിപ്രായം അങ്ങനെ തന്നെ പോട്ടെ അത്രേ ഉള്ളു